ആ ഹലോ ആരാ ആരാ ആ ആ പറയു ആ ഏ ഇതാരാ വിളിക്കുന്നത് ആ ആ ആ അത് ഞാനെന്റെ അക്കൗണ്ട് ഉണ്ട് അത് ഞാൻ ഇപ്പം ട്രിവാന്ഡ്രത്തായിരുന്നു കുറച്ച് ദിവസം അപ്പം അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഉണ്ടായിരുന്നു പത്തനംതിട്ടക്കേ അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റേയ്ല്സ് എനിക്കറിയാനാരുന്നു കാരണം എനിക്ക് പുതിയ അക്കൗണ്ട് ട്രാന്സ്ഫർ ആയിട്ടിതാന്നാ പറഞ്ഞത് എന്റെ പുതിയ അക്കൗണ്ട്സ് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ബാക്കി കാര്യങ്ങളെന്താണ് എനിക്ക് ക്യാഷ് ഇടണമായിരുന്നു അക്കൗണ്ടിലേക്ക് ആ ഈ ബ്രാഞ്ചിലേക്ക് ഞാനിപ്പോൾ ഒരു കുറേ വര്ഷമായി അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞു അവിടെയുള്ള അക്കൗണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആക്ടീവ് ആക്കി എന്നാണ് പറഞ്ഞത് ബാക്കി എനിക്കത് അതിനകത്ത് ഇനി യൂസ് ചെയ്യാനൊന്നും എനിക്ക് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ആണോ പഴയത് യൂസ് ചെയ്താൽ ആ അത് അത് എന്റെ അടുത്ത് പറഞ്ഞു എന്തോ പേയ്മെന്റ് ഞാൻ അടക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കാരണം ബില് ബാലന്സ് വന്നിട്ട് പേയ്മെന്റ് എനിക്ക് എന്താ പറയുക ഇതായിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ബാങ്ക് ചാര്ജ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ആ ആ ഓക്കെ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാണോ എക്സ്ട്രാ ആയിട്ട് ആധാറോ അങ്ങനെ എന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാന് എക്സ്ട്ര ആയിട്ട് എടുക്കണോ ഇതിന് വേണ്ടിയിട്ട് ആ ആ അല്ലല്ല കുറച്ച് ദൂരമാണ് വീട് ആ ആ ആ ഓക്കെ രണ്ട് ദിവസം എടുക്കുമല്ലേ ടൈം പെട്ടെന്ന് ആക്കാൻ പറ്റുമോ ഇത് നമുക്ക് ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ വരാം അപ്പം ഞാൻ ഫ്രൈഡേ വരാം കേട്ടോ വേറെയൊന്നും എടുക്കേണ്ടല്ലോ വേറെ നമ്മുടെ പാന് പാനും ആധാറും മതിയാവുമല്ലോ അല്ലേ അക്കൗണ്ട് ആ ഓ ഓക്കെ ഓക്കെ ഞാൻ അപ്പം ഫ്രൈഡേ വരാം കേട്ടോ മ്മ് ശരി എന്നാൽ താങ്ക് യൂ